ഹലോ ഞാനൊരു ക്യാബ് ബുക്ക് ചെയിതിരുന്നു പത്തു മണിക്കായിരുന്നു വരാന് പറഞ്ഞിരുന്നത് അതില് പത്തു മണിയായിട്ടു ഇവിടെ പത്തു മണി മുതല് നില്ക്കാന് തുടങ്ങിണ് ഞാനിവിടെ ഇപ്പോള് പന്ത്രണ്ടു മണിയായി ഏറണാകുളത്തേക്ക് അടിയന്തരമായിട്ട് പോവാനുള്ളതായിരുന്നു അവിടൊരു മീറ്റിങ്ങിനു പങ്കെടുക്കാന് ആകെ ഇത്രയും സമയം ഞാന് വെയ്റ്റ് ചെയ്തു ഇനിയും വെയ്റ്റ് ചെയ്യാന് സമയമില്ല അപ്പോള് ഞാന് തന്ന പൈസ എന്റെ അക്കൗണ്ടിലേക്ക് റിട്ടേണ് തരണം വേറൊരു ടാക്സി വിളിച്ച് പോവുകയാണ് ഞാന് എന്റെ പൈസ എത്രയും പെട്ടെന്ന് എന്റെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്ത് തരണം